പ ച ഇടുക്കിയാണെൻ്റെ പ്രദേശം അവിടെ എനിക്ക് മെയിനായിട്ട് നദികളെ പറ്റി ഒന്നും വലിയ അറിവില്ല ഡാം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ മൊത്തം അറിയാവുന്നൊരു ഡാമാണ് ഇടുക്കി ഡാം അല്ലേ അപ്പം അവിടുത്തെ ഡാമിലെ വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നു വെച്ചാൽ ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആ വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് ഉത്പാദിപ്പിക്കാനൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് അതു പോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കാര്യങ്ങളെന്നു വെച്ചാൽ വെള്ളം മറ്റു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരുപാട് അത്യാവശ്യമുള്ള കാര്യമാണല്ലോ പക്ഷേ അതെന്താണെന്ന് ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങളെ ഒരുപാട് ആശങ്കയിൽ ആഴ്ത്തുന്ന ഒന്നും കൂടിയാണ് പ്രളയ സമയത്തൊക്കെ പ പ്രത്യേകിച്ച് ടൗണ് ഏരിയയിൽ താമസിക്കുന്നവരൊക്കെ എറണാകുളം കോട്ടയം പോലെയുള്ള ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് പ്രളയസമയത്ത് ഒരു ഭീതി പരത്തുന്ന ഒന്നാണ് നമ്മുടെ ഇടുക്കി ഡാമെന്നു പറയുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളു ഡാമിനെ പറ്റി പറയാൻ നദികളെ പറ്റി എനിക്ക് അങ്ങനെ അറിവില്ല ഡാമിനെ പറ്റിയാണെങ്കിൽ ഇടുക്കി ഡാം തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്